ആ ജൈവവാതക പ്ലാന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് തീർച്ചയായും നല്ലൊരു പദ്ധതി തന്നെ പദ്ധതി തന്നെയാണ് എൻ്റെ വീട്ടിലും ആ ജൈവവാതക പ്ലാന്റുകളുണ്ട് നമുക്ക് ഇത് വീടുകളിലെ വേസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്കിത് തീർച്ചയായും സഹായിക്കാറുണ്ട് അപ്പോൾ ഇത് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ട് ഇവിടുത്തെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ കുറച്ചാൾക്കാരുടെ വീട്ടിലൊക്കെ ജൈവവാതക പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വീടുകളിൽ നിന്നും നമുക്ക് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റും മറ്റു കാര്യങ്ങളും ഇതിൽ ഇടുകയാണെന്നു വച്ചാൽ അത് കുറച്ചു ദിവസത്തിനുശേഷം നമുക്ക് നല്ല വളമായിട്ട് മാറും അപ്പോൾ അത് നമുക്ക് ചെടികൾക്കും മറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് തീർച്ചയായും നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വേസ്റ്റും മറ്റു കാര്യങ്ങളും ഇടുമ്പോൾ ചുറ്റുമുള്ള വീടുകൾക്കും അത് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അത് നമ്മളെന്തു ചെയ്യുന്നുള്ളൊരു ആലോചനയ്ക്കൊരു പരിഹാരമാണ് ബയോ ഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ജൈവവാതക പ്ലാന്റുകൾ അപ്പോൾ ഇവ സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് വെയ്സ്റ്റിന്റെ എണ്ണം അത് പിന്നീട് നമുക്കത് വേസ്റ്റിനും മറ്റ് റീസൈക്കിൾ ചെയ്ത് പിന്നീട് വളമാക്കി മാറ്റുക എന്നു പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നതാണ് ഈ ജൈവവാതക പ്ലാന്റ്